ഈ ഈ ബുക്ക് കൊണ്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും വല്ല്യ പ്രോബ്ലം വരുന്നത് നമ്മുടെ കണ്ണുകൾക്കാണ് ഈ ഇലക്ട്രോണിക്സ് ബുക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലോ നമ്മളെ ലാപ്ടോപ്പിലോ നമ്മുടെ പേർസണൽ കംബ്യൂട്ടേഴ്സിലോ എന്തില് ഉപയോഗിക്കാനാണെങ്കിലും നമക്കത്രയും സ്ട്രെയിൻ അതിൽ വരും നമ്മൾ നോർമൽ ബുക്സ് വായിക്കുന്ന പോലെത്തന്നെ നമ്മൊളൊരാൾ ഈ ബുക്സ് വായിക്കുക അത്രയും സ്ട്രെയിൻ ആൻഡ് അത്രയും ലൈറ്റ് നമ്മുടെ കണ്ണുകളിലോട്ട് അടിക്കുന്നതുകൊണ്ട് കണ്ണിന് നല്ല പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതേപോലെത്തന്നെ നമുക്ക് വായനാശീലം കമ്മിയാകാനുള്ള ഒരു അമ്പത് ശതമാനം ചാൻസ് ഈ ഈ ബുക്ക് വഴികൾ തന്നെയുണ്ടാവും കാരണം ഏറ്റവും നന്നായി ബുക്ക് പഠിക്കുന്ന കുട്ടി ഒരു ഈബുക്കിലോട്ടേക്ക് വന്നാൽ ആ കുട്ടിക്ക് ഫെയിസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇഷ്യൂവാണ് ഈ കണ്ണുകളിൽ ഈ പ്രോബ്ലം കണ്ണുകൾ വേദനിക്കുക അത് ആ കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇംപാക്റ്റ് ഉണ്ടാക്കുകയും അതെപോലെത്തന്നെ ആ കുട്ടികളിൽ നോർമൽ ബുക്ക് വായിക്കാനുള്ള ആ പ്രവണത കൂടി കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് അത്ര നല്ല ഒരു സംഭവമല്ല